ഞാനെൻ്റെ ഒരു നാലാമത്തെ വയസ്സിലാണ് നൃത്തത്തിലോട്ട് കടന്നു വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു കുടുംബയോഗത്തിൽ പ്രോഗ്രാം നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ പ്രോഗ്രാമിന് എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർ ഡാൻസ് പഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു ഞാനവരുടെ കൂടെ പോയിരുന്ന് പോയി ഡാൻസ് പഠിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു അന്ന് ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് ആ സ്റ്റേജിൽ നിന്ന് ഒത്തിരി പ്രോത്സാഹനവും കയ്യടിയും കിട്ടി അതെനിക്ക് ഒരു നേട്ടമായി തോന്നി പിന്നെ ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങി നമ്മൾ എത്ര വിഷമമുണ്ടെങ്കിലും മനസ്സു തുറന്ന് ഡാൻസ് കളിക്കുമ്പോൾ വിഷമം കുറയുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഓരോ ഹോബികളുണ്ടല്ലോ അപ്പോൾ അതിൽ ഞാനും നൃർത്തത്തിലാണ് ആ ഹോബി കണ്ടെത്തിയത് അങ്ങനെ സ്കൂൾ തലങ്ങളിലും ഒത്തിരി സമ്മാനങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കോളേജ് തലങ്ങളിലും ഒത്തിരി സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ നൃത്തത്തിൽ ആ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പം ഒരു പത്തു വർഷമായിട്ട് നൃത്തത്തോടൊക്കെ അങ്ങനെ നൃത്തം ചെയ്യാറൊന്നുമില്ല ഇപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ പഠിക്കണോയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നൃത്തങ്ങൾ നൃത്തത്തിൽ ഏറ്റവും നൃത്തത്തിൽ കളിക്കാനും ഏർപ്പെടാനും ഇത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്